ലോകത്ത് തന്നെ ഇന്ത്യ ഇത്രയും വലിയൊരു ശക്തിയായി മാറി എന്ന് നമ്മള് പറയുന്നുണ്ട് പക്ഷെ എന്നാല്പ്പോലും മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമ പ്രദേശങ്ങളായാല്പ്പോലും മുംബൈ അതേപോലത്തെ മുംബയില്ത്തന്നെ മുംബൈ വലിയൊരു നഗരമാണെങ്കില്പ്പോലും അതിലും കുറേ സ്ഥലങ്ങളില് ഇപ്പോഴും സ്ലംസ് എന്ന് പറഞ്ഞ് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോഴും വൃത്തിയോ ഒന്നും ഇല്ലാണ്ടാണ് ആള്ക്കാര് താമസിക്കുന്നത് അവിടെയൊക്കെ കയറിവരുന്ന രോഗങ്ങള്ക്കൊന്നും ഒരു കണക്കും ഇല്ലാണ്ടാണ് പ്രശ്നങ്ങള് ഉണ്ടായിവരുന്നത് ആള്ക്കാര്ക്ക് നല്ലവണ്ണം ഭക്ഷണമോ വെള്ളമോ കിട്ടാനൊന്നും സാധിക്കാത്ത നിലയിലാണ് അവിടത്തെയൊക്കെ സാഹചര്യം മുംബൈയില് മാത്രമൊരു എക്സാമ്പിള് ഞാന് നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് ഇതേപോലെ രാജ്യമെമ്പാടും അവസ്ഥ ഇതേ കാര്യമാണ് അത്ര ദയനീയകരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും ഉള്ളത് ഇത്രയും വലിയൊരു പവര്ഫുള് രാജ്യമായിട്ട് പോലും ലോകമെമ്പാടും ഇത്രയും വലിയൊരു പവര്ഫുള് രാജ്യമായിട്ട് പോലും നമുക്ക് ഈ കാര്യങ്ങളില് ഒന്നും ചെയ്യാന് പറ്റുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്

ഏറ്റവും ചെറുതായിട്ട് വെള്ളമെങ്കിലും നല്ല വെള്ളമെങ്കിലും നല്ല ശുദ്ധമായ വൃത്തിയുള്ള വെള്ളമെങ്കിലും എല്ലാവര്ക്കും ലഭ്യമാക്കാനുള്ള കാര്യങ്ങള് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അവര് ഇപ്പോഴും കുളിക്കാനും മറ്റ് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരേ വെള്ളമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളില് അതൊക്കെ മാറ്റി വളരേ വൃത്തിയുള്ള വെള്ളം നല്കാനും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകളായാലും മറ്റും നല്കാനും ശ്രദ്ധിക്കാന് നമ്മുടെ സര്ക്കാര് നോക്കണമെന്ന് എന്റൊരു ഇതാണ് അതല്ലാണ്ട് എല്ലാ ആള്ക്കാര്ക്കും മരുന്നുകള് അവര്ക്കത്യാവശ്യമായ മരുന്നുകളെല്ലാം കൊടുക്കാനുള്ള കാര്യം നമ്മുടെ സര്ക്കാര് നോക്കിയാല് വളരെ നന്നായിരിക്കും ഈ പണമില്ലാണ്ട് കഷ്ടപ്പെടുന്ന ആള്ക്കാര്ക്ക് സൗജന്യമായ മരുന്നുവിതരണം അതേപോലെയൊക്കെ ചെയ്താല് വളരെ നന്നായി അവരെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവരാന് സാധിക്കുമെന്നെനിക്ക് തോന്നുന്നു